ആരോഗ്യസംരക്ഷണം ഗതാഗതം വിദ്യാഭ്യാസം മറ്റടിസ്ഥാന സൗകര്യങ്ങൾ പട്ടണത്തിലും ഗ്രാമത്തിലും നഗരത്തിലും മികച്ചതാകാൻ വേണ്ടി സർക്കാരാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ളത് അതിപ്പോള് സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര ഗവണ്മെൻറ്റുകളായാലും അവര് നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം നമ്മുടെ സിസ്റ്റം ഈ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരടങ്ങുന്ന സിസ്റ്റം അതിപ്പോള് ജില്ലാ കളക്ടർ മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെ സർക്കാരിലെ ഓരോ ഉദ്യോഗസ്ഥന്മാരും നല്ല രീതിയിൽ പ്രവർത്തിച്ചാലേ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യമേഖലയും പൂർണ്ണമായും നൂറു ശതമാനം എഫിഷ്യൻറ്റോടെ അത് കാര്യക്ഷമമായി ഇത് ഗ്രാമങ്ങളുടേയും നഗരങ്ങളുടേയും വികസത്തിൽ വികസനത്തിൽ അത് മുന്നേറുകയുള്ളു നമുക്ക് സർക്കാരിൽ നിന്ന് തരാനുള്ളത് ഇത്ര ഇത്ര മാത്രമാണ് അവരുടെ സർക്കാരിൻ്റെ സേവനങ്ങൾ ഏറ്റവും മികച്ചതായി ജനങ്ങളിലേക്കവരെത്തിക്കുക സർക്കാരെത്രത്തോളം മികച്ച രീതിയിൽ സേവനങ്ങളെത്തിക്കുന്നോ അത്രത്തോളം മികച്ച രീതിയിൽ പട്ടണങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും വികസനത്തിൻ്റെ പാതയിലതങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കും ഇതാണെനിക്ക് സർക്കാര് തന്ന ആവശ്യമായ കാര്യങ്ങൾ അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഇതാണ് ഒരു പൗരനെന്ന നിലയിൽ ഞാൻ സർക്കാരിനോട് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്